ഞാനൊരു മോയിസ്റ്റുറൈസർ ക്രീം ഓൺലൈനിൽ ഓഡറ് ചെയ്ത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഞാൻ കേട്ടിട്ടില്ലാത്ത ഒരു കമ്പിനിയുടെ പ്രൊഡക്റ്റായിരുന്നു വൈ പി വൈ പി വൈ പി എന്നു പറയുന്നൊരു കമ്പിനിയുടെ പ്രോഡക്റ്റാണ് അപ്പം ഇതുവരെ കേട്ടിട്ടില്ലാത്തൊരു കമ്പിനിയാണ് പിന്നെ എങ്ങനെയുണ്ടെന്നു അറിയാൻ വേണ്ടിയിട്ടു കൂടി ആയിരുന്നു ഞാനത് പ്രൊഡക്റ്റ് ഓർഡർ ചെയ്തത് വിലയും ഇച്ചിരി കൂടുതലായിരുന്നു എന്നു വെച്ചാൽ ഒരൂ അറുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയായായിരുന്നു വില ഞാൻ ഓർഡർ ചെയ്ത് എങ്ങനെയുണ്ടെന്നു യൂസ് ചെയ്തു നോക്കാമെന്നു വിചാരിച്ച് ഒ ഓർഡർ ചെയ്തതാണ് പക്ഷെ എനിക്കത് ഭയങ്കരമായിട്ടൊരു ബാഡ് എക്സ്പീരിയൻസ് ഒരു നെഗറ്റീവ് എക്സ്പീരിയൻസാണ് എനിക്കതിൽ നിന്ന് ഉണ്ടായത് കാരണം ആ പ്രൊഡക്റ്റ് ആദ്യത്തെ ഒരു ദിവസം ഞാനത് മുഖത്തു തേച്ചു കഴിഞ്ഞപ്പം മോയ്സ്ച്ചുറൈസിംഗ് ക്രീം ആയിരുന്നു അത് തേച്ചു കഴിഞ്ഞപ്പം എനിക്കു വലിയ കുഴപ്പം തോന്നിയില്ല രണ്ടാമത്തെ ദിവസം തേച്ചപ്പോഴും വലിയ പ്രശ്നമൊന്നും തോന്നിയില്ല ചെറിയ ഒരു ഇറി ഒരു ഇറിറ്റേഷൻ തോന്നിയിരുന്നു മൂന്നാമത്തെ ദിവസം അത് ഞാൻ ഉപയോഗിച്ച് കഴിഞ്ഞപ്പം എനിക്ക് വല്ലാത്തൊരു ഇച്ചിങും വല്ലാത്തൊരു ബുദ്ധിമുട്ട് എനിക്ക് അനുഭവപ്പെട്ടു കാരണം ഒരു അതിൻ്റെ ഒരു എന്തോ ഒരു നല്ല സ്മെല്ലൊക്കെ ആയിരുന്നു പക്ഷെ എൻ്റെ മുഖം വല്ലാതെ ചൊറിഞ്ഞ് മുഖത്തൊരു തരം പാണ്ട് പോലെയൊക്കെ വന്നു ഒരു പാണ്ടുകളും ഇങ്ങനെ ചെറിയ പാടുകൾ ഒരു വെളുത്ത വെളുത്ത പാണ്ടുകൾ ഈ വൈറ്റമിൻ ഡെഫിഷ്യൻസി ഒക്കെ കൊണ്ട് നമ്മുടെ മുഖത്തുണ്ടാകുന്ന ചെറിയ വെള്ള പാണ്ടുകളില്ലെ അതുപോലെ ചെറിയ പാണ്ടുകളൊക്കെ എൻ്റെ മുഖത്ത് വരാൻ തുടങ്ങി വല്ലാതെ ഈ പിംപിൾസ് കുരുക്കളൊക്കെ മുഖത്തു പൊങ്ങാൻ തുടങ്ങി അങ്ങനെ എനിക്ക് ഒരുപാട് അധികം ബുദ്ധിമുട്ടുകൾ ആ പ്രൊഡക്റ്റ് യൂസ് ചെയ്തത് കൊണ്ട് ഉണ്ടായിട്ടുണ്ട് ഇത്രയും ഒരു മോശപ്പെട്ട ഒരു പ്രൊഡക്റ്റ് ഞാൻ ഇന്നേവരെ യൂസ് ചെയ്തിട്ടില്ല കാരണം പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അതിൻ്റെ സ്മെല്ലും മാറി ഒരു വല്ലാത്തൊരു ബാഡ് സ്മെല്ലിലേക്കായി അതിൻ്റെ കളർ മാറി മുഖത്തു യൂസ് ചെയ്തപ്പം വല്ലാതെ എൻ്റെ മുഖം എൻ്റെ ഫെയ്സെ ആകെപ്പാടെ മാറിപ്പോയി ഞാൻ പിന്നെ വെ മേറെ മറ്റ് സ്കിന്നിൻ്റെ ഡോക്ടറെ കണ്ട് കുറച്ചു മെഡിസിനൊക്കെ കഴിച്ചിട്ടാണ് എൻ്റെ ആ ഇതൊക്കെ ഡൾനെസ്സും പാടുകളും പിംപിൾസും എല്ലാം ഒന്നു മാറി ഇപ്പോൾ ഒന്ന് ഓക്കെ ആയി വന്നതെ ഉള്ളു അതുകൊണ്ട് ആ ഒരു പ്രൊഡക്റ്റ് ആ ഞാൻ അറിയാവുന്ന എല്ലാവരോടും പറയും അങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഓൺലൈനിലുണ്ട് അതാരും ഓർഡർ ചെയ്തു വാങ്ങരുത് വല്ലാത്തൊരു ബാഡ് എക്സ്പീരിയൻസ് മാത്രമെ നമുക്കത് ഉണ്ടാക്കി തരികയുള്ളു അല്ലാതെ അതൊരു നല്ല പ്രോഡക്റ്റേയല്ല ഏറ്റവും മോശം പ്രോഡക്റ്റാണ് അതുകൊണ്ട് നമുക്കറിയില്ലാത്ത കമ്പിനികളിൽ നിന്നൊക്കെ ഓർഡർ ചെയ്യുമ്പം നമ്മളതിൻ്റെ റിവ്യൂ ഒക്കെ പരിശോധിച്ച് നല്ല രീതിയിൽ മറ്റുള്ളവരോട് തിരക്കിയിട്ട് മാത്രമെ ഓർഡർ ചെയ്യാവുള്ളൂ അല്ലെ നമ്മുടെ പൈസയും പോകും നമ്മുടെ സ്കിന്നിന് അത് വല്ലാത്ത ബാഡ് എഫക്റ്റ് ഉണ്ടാക്കുകയും ചെയ്യും